നമ്മുടെ നേരത്തെ പബ്ലിക് ഹെൽത്ത് ഇവിടുത്തെ ഒരു പി എച്ച് സിയാണേ ഇപ്പം ആ കുടുംബ ആരോഗ്യ കേന്ദ്രമാക്കി മാറ്റിയിട്ടുണ്ട് വലിയ ഒരിതായിട്ട് പി എച്ച് എസ് നല്ല വിപുലീകരിച്ചിട്ടുണ്ട് എല്ലാ സൗകര്യങ്ങളും ഉണ്ട് അവിടെ ലാബും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ലാബ് ആയിത്തി ലാബിലാണെ ഇല്ലാത്ത കല ടെസ്റ്റുകളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഇപ്പം ചെയ്യാനൊക്കെ സോഡിയവും അങ്ങനത്തെ ഉള്ളതൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി

മിഷ്യനൊക്കെ അതിനു വേണ്ട മിഷീനുകളൊക്കെ ഉണ്ട് മിഷ്യനൊക്കെ വരുത്തി അതു നടത്തി അതു പോലെ തന്നെ പിന്നെ അവിടെ ഇ സി ജി എടുക്കാനുള്ള സൗകര്യമുണ്ട് എന്തെങ്കിലും എമർജെൻസിയായിട്ടിപ്പം ഒരു ചെസ്റ്റ് പെയിൻ വന്നു കഴിഞ്ഞാൽ നമ്മളിവിടുന്ന് ഒത്തിരി ദൂരം പോകണം വെള്ളടയില്ല ആനപ്പാറയെന്ന പറയുന്ന സ്ഥലത്തൊക്കെ പോയി എത്രയോ പത്ത് ഇരുപത്തെട്ട് കിലോ മീറ്ററൊക്കെ ദൂരെ പോകണമായിരുന്നു ഇപ്പം ഇവിടെ ഒരു ഈ സി ജിയൊക്കെ എടുക്കാനുള്ള സൗകര്യവും അങ്ങനെയുള്ള സൗകര്യങ്ങളെല്ലാം ഉണ്ടാക്കിയതു കൊണ്ടത് അപ്പോൾ തന്നെ അത് നമ്മുടെ ഒത്തിരി ക്ലീൻ ക്ലീനാക്കിയിട്ടുണ്ട് ഒത്തിരിയും പണ്ടത്തതിനേക്കാളും നല്ല വൃത്തിയുണ്ട് നല്ല സൗര്യങ്ങളുണ്ട് അതിനുണ്ട് ഒട്ടും മീൻസ് നല്ല ടോക്കൺ സൗകര്യമൊക്കെ ഉള്ളതു കൊണ്ട് ആരും ഇടിച്ചു കയറി ചെല്ലത്തില്ല അതിന് ക്യു ഒക്കെ നിന്ന് നല്ല രീതിയിൽ അത് പ്രവർത്തനമായിരിക്കുകയാണ് അതു പോലെ തന്നെ അവരും ക്യാമ്പുകൾ നടത്താറുണ്ട് കണ്ണിൻ്റെയും കണ്ണിൻ്റെ പരിശോധന അത് വേറെയുള്ള മെഡിക്കൽ കോളേജിൽ നിന്നും അങ്ങനെ കാരക്കോണം അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിന്നൊക്കെ വന്ന് അവർ ക്യാമ്പ് നടത്താറുണ്ട് നാ എന്നിട്ട് അവരെ പാവപ്പെട്ട പണക്കാരല്ല അവർക്ക് അവരെ കൊണ്ടു പോയി സൗജന്യമായിട്ട് ഇവിടുത്തെ ഹെൽത്തിൻ്റെ ഇതിൽ തന്നെ അവരെ കൊണ്ടു പോയി ക്യാമ്പ് നടത്തിയിട്ട് കണ്ണിന് കാഴ്ചയോ തിമിരമോ അങ്ങനെയുള്ള ഉണ്ടെങ്കിൽ അതു കൊണ്ടു പോയി ശസ്ത്രക്രിയ ചെയ്ത് കൊണ്ടു വരികയും അതിനെല്ലാം ഉത്തരവാദി ഇവർ തന്നെ ഹോസ്പിറ്റലായിട്ടു തന്നെ ഏറ്റെടുക്കുകയും എല്ലാം ചെയ്യുന്നുണ്ട് അങ്ങനെ ഒത്തിരി നല്ല രീതിയിൽ വിപുലീകരിച്ച് പിന്നെ സ്ഥലവും പരിസരവും എല്ലാം നല്ല ക്ലീനിങ്ങും പണ്ടത്തെ അപേക്ഷിച്ച് നല്ല ക്ലീനിങ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒത്തിരി ബെറ്ററായിട്ടുണ്ട് അതു പോലെ തന്നെ ക്യാൻസറിനെ കുറിച്ച് ബോധവത്കരണം ക്യാമ്പുകൾ നടത്തുന്നു ഇവിടുത്തെ സ്റ്റാഫ് തന്നെ വേറെ ആർ സി സിലും മറ്റും പോയി പഠിച്ചിട്ട് അവിടെ നിന്ന് അവർ വന്നിട്ട് ആഴ്ചയിലോരോ ഒരു ദിവസം ക്ലീനിക്ക് ക്ലീനിക്കുകളിൽ പോയി ഇതിൻ്റെ പല സബ് സെൻറ്ററുകളുണ്ട് ഈ ഇവിടുത്തെ പി എച്ച് സിയുടെ അങ്ങനെ പല സെൻട്രകളിൽ അവർ ചെന്ന് കേൻസറിന് കൂടുതലായിട്ടുള്ള ഈ ബ്രെസ്റ്റ് കാൻസർ അങ്ങനെയുള്ളയാണ് അതെപോലെ സ് സ്പാസ് നിയറോ അങ്ങനെ എടുക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ അതൊക്കെ ഒത്തിരി വിപുലീകരിച്ച് അങ്ങനെ അതിനുള്ള സ്റ്റാഫുണ്ട് അതെയിടക്ക് അവരുടെയിടക്കിടക്ക് നമുക്ക് ബോധവത്ക്കരണ കാ ക്ലാസ്സുകൾ നടത്താറുണ്ട് അതിനെക്കുറിച്ചൊക്കെ അപ്പോൾ തന്നെ പനിയൊക്കെ പിടിക്കുന്ന സമയത്ത് ഒത്തിരി കൂടുന്ന സമയത്ത് അവർ വീടുകളിൽ കൂടി വന്ന് നമ്മുടെ കൂടുതൽ നമ്മുടെ ക്ലീനാണോ വെള്ളം എവിടെയെങ്കിലും കെട്ടി കിടക്കുന്നുണ്ടോ എന്നൊക്കെ അന്വേഷിക്കുകയും അതിനെകുറിച്ചെല്ലാം പറഞ്ഞു തരികയും എല്ലാം അതിനെ ബോധവത്ക്കരണം നടത്താറുണ്ട് അങ്ങനെ ഒത്തിരി പണ്ടത്തെ അപേക്ഷിച്ച് ഒത്തിരി ക്ലീനിക്കിലൊക്കെ ഒത്തിരി നല്ല ഇതായിട്ട് നമ്മുടെ പി എച്ച് സിയിൽ നിന്നിട്ടുണ്ട് അതു പോലെ തന്നെ വേറെയുള്ള സ്ഥലങ്ങളിലായാലും ആൾക്കാരൊക്കെ വേറെ ഡോക്റ്റേഴ്സിനെ ഒക്കെ അവർ വരുത്തി വരുത്തി നല്ല ക്ലാസ്സുകളൊക്കെ നൽകിയെയും അതിനു വേണ്ട നിർദ്ദേശങ്ങളൊക്കെ തരികയൊക്കെ ചെയ്യുന്നുണ്ടവർ പിന്നെയും ഒത്തിരിയും പാലിയേറ്റിവ് കെയർ ഒത്തിരി പേഷ്യൻറ്റ് പണ്ടൊന്നും അങ്ങനെയില്ലായിരുന്നു ഇങ്ങനെ കിടപ്പു രോഗികളെ പോയി സന്ദര്ശിക്കുകയും അവർക്കു വേണ്ടുന്ന കെയർ കൊടുക്കുകയും അവർക്ക് വേണ്ട മീൻസ് ഇപ്പം യൂറിന് കതീട്രലൊക്കെ ഇടുവാണേലവരതിന് കതീട്രലൊക്കെ മാറ്റി ക്ലീനിങ് കൊടുക്കുകയും അവർക്ക് മെഡിസിൻ എത്തിച്ച് കൊടുക്കുകയും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കാറുണ്ട് ഒത്തിരിയും പണ്ടത്തെ അപേക്ഷിച്ച് ഒത്തിരിയൊത്തിരി മാറിയിട്ടുണ്ട് നമ്മുടെ ക്ലീ ഇവിടുത്തെ പി എച്ച് പബ്ലിക് ആരോഗ്യ പരമായിട്ടുള്ള പ്രവർത്തനം അവരൊക്കെ ഒത്തിരി ലാബ് ലാബ് ഡോക്ടേഴ്സ് ഒത്തിരി ഡോക്റ്റേഴ്സുണ്ട് ഷിഫ്റ്റായിട്ടൊക്കെയായാൽ അവർ രണ്ടും മൂന്നും നേരമൊക്കെ പേരൊക്കെ ഇങ്ങനെ വന്നിരുന്ന് അവർ രാവിലെ തൊട്ട് പന് നേരത്തെയൊക്കെ ആണേ രാവിലെ തൊട്ട് ഉച്ചവരെയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പോൾ അതൊക്കെ മാറി രാവിലെ തൊട്ട് വൈകിയിട്ട് വരെയുള്ള സ്ഥലം അവർ ഇരിക്കും പിന്നെ ദൂരെ നിന്നൊക്കെ വരുന്ന ആൾക്കാരെയൊക്കെ നോക്ക് എത്ര സമയം വേണ്ടില്ല അവരിരുന്നു നോക്കും അങ്ങനവർക്കൊരു മടിയുമില്ലാതായി കൊണ്ടിരിക്കുകയാണ് പിന് പിന്നെന്നായെന്നു ചോദിച്ചാൽ എക്സ് റേയ്ക്ക് എക്സ് റേ അങ്ങനെ എക്സ് റേ ടെക്നീഷ്യൻമാർ ഈ സീ ജി ടെക്നീഷ്യന്മാർ ലാബ് ടെക്നീഷ്യന്മാർ അങ്ങനെ എല്ലാം നേഴ്സുമാർ ആവശ്യത്തിനുണ്ട് ഇപ്പം പണ്ടൊക്കെയാണേ ഒരു നേഴ്സ് ഒരു ഡോക്ടറൊക്കെ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പം അങ്ങനെയല്ല ഇപ്പോൾ ഒത്തിരി നേഴ്സുമാർ കൂടുതൽ നേഴ്സുമാരെ വരുത്തി അങ്ങനെ ഒത്തിരിപേരെയൊക്കെ വരുത്തിയിട്ടുണ്ട് അങ്ങനെ ഒത്തിരി നല്ല നല്ല കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്